ഞാൻ മൂന്ന് നാല് വ്യത്യസ്ത രീതികളിലാണ് എൻ്റെ പറമ്പ് നനയ്ക്കുന്നത് ഒന്ന് ഓസിട്ട് നമ്മൾ കൈ കൊണ്ട് പറമ്പൊക്കെ നനച്ച് കൊടുക്കുന്ന രീതിയുണ്ട് കുറേ ഭാഗം നമ്മൾ സ്പ്രിംഗ്ലർ ഉപയോഗിച്ച് നനക്കുന്ന രീതിയുണ്ട് കുറച്ച് ഭാഗം നമ്മളിങ്ങനെ ചിറകൾ ഒക്കെ കെട്ടി നിർത്തി വെള്ളം നനയ്ക്കുന്ന രീതികളുണ്ട് അങ്ങനെ പിന്നെ ബക്കറ്റിനൊക്കെ കോരിയൊഴിക്കുന്ന രീതിയുണ്ട് കൂടുതൽ നമ്മൾ മോട്ടർ വെച്ച് കൂടുതൽ ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളിലേക്ക് മോട്ടർ വെച്ച് ഉപയോഗിച്ച് ആണ് നമ്മൾ നനയ്ക്കുന്നത് അവിടെ നമ്മൾ പറമ്പിൽ വലിയ കുഴിയുണ്ടാക്കി പടുത അതിനകത്തിട്ട് അതിനകത്ത് വെള്ളം പിടിച്ചാണ് ഒന്നടിക്കുന്നത് പിന്നെ മറ്റൊന്ന് എന്നു പറയുന്നത് നമ്മുടെ വീടിൻ്റെ മുകളിൽ നിന്നും ഒക്കെ വരുന്ന വെള്ളം അതു പോലെ തന്നെ പടുതയായിട്ട് ഒരു കുഴിയിലേക്ക് ആക്കുകയും അവിടെ നിന്ന് ഓസിട്ട് താഴെയുള്ള പ്രദേശങ്ങളിലേക്ക് സ്പ്രിംഗ്ലർ കറക്കി പറമ്പ് നനക്കുകയും ചെയ്യുന്ന രീതിയാണ് ഏലത്തിനാണ് പ്രധാനമായിട്ടും ഞങ്ങളിങ്ങനെ നനക്കുന്നത് അപ്പം മഴയെ ആശ്രയിച്ചാണ് കൂടുതലും മെയിനായിട്ട് കൃഷി ചെയ്യുന്നത് പറമ്പ് മുഴുവൻ ഇങ്ങനെ വെള്ളം നനച്ച് ചെയ്യാനും മാത്രം വെള്ളത്തിൻ്റെ ഒരു ലഭ്യത കുറവുണ്ട് ഒരുപാട് നാൾ മൂന്ന് നാല് മാസമൊക്കെ ഉണങ്ങുകയാണെങ്കിൽ അത്ര നാൾ നനയ്ക്കാനുള്ള വെള്ളം നമുക്ക് ലഭിക്കുകയില്ല കാരണം ഒരു പ്രദേശം മുഴുവൻ ഏലമെന്നു പറയുമ്പോൾ മണ്ണ് മുഴുവൻ നനയണം അതിന് ഒരുപാട് വെള്ളം ആവശ്യമാണ് അപ്പം കൃഷിയാണ് നമ്മൾ മെയിനായിട്ട് കൃഷി മഴയൊക്കെ തീരാറാകുന്നൊരു സമയം വരെ ഇവിടുത്തേക്കും മണ്ണൊക്കെ ഇളക്കി ചപ്പൊക്കെ വാരിയിട്ട് മണ്ണിൽ പൊതയൊക്കെയിട്ട് മണ്ണ് കൊണ്ടു തന്നെ നമ്മൾ നനയെ ക്രമീകരിക്കാൻ നമ്മൾ നല്ല രീതിയിൽ ശ്രമിക്കും എന്നിട്ട് നമുക്ക് പറ്റാതെ വരികയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതു പോലെ നേരത്തേ ശേഖരിച്ച് വെച്ചിരുന്ന വെള്ളമുണ്ട് മഴവെള്ള സംഭരണി പുരയുടെ മുകളിൽ നിന്നും ഒക്കെ വലിയ പടുതാ കുളങ്ങൾ കുളങ്ങളിൽ ശേഖരിച്ചിരിക്കുന്ന വെള്ളം അവിടെ നിന്ന് കയറ്റമുള്ള സ്ഥലങ്ങളിലേക്ക് മോട്ടർ വെച്ചും താഴേക്ക് ഗ്രാവിറ്റി മൂലവും നമ്മൾ നനയ്ക്കും അത് രണ്ട് വിധത്തിലും നനയ്ക്കാറുണ്ട് നമുക്ക് കൈ കൊണ്ട് നനക്കുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറവുണ്ട് നമുക്കെവിടെയാണ് കൂടുതൽ വെള്ളം വേണ്ടത് എങ്കിൽ അവിടെ നമുക്ക് കൂടുതൽ വെള്ളം ഒഴിക്കാനും കുറവ് വെള്ളം വേണ്ടത് അതായത് പാറയുടെ കാലുള്ള സ്ഥലങ്ങൾ എന്നു പറഞ്ഞാൽ മണ്ണിന്നാഴം കുറവുള്ള സ്ഥലങ്ങളിൽ ഷെയ്ടൊക്കെ കുറവുള്ള സ്ഥലങ്ങളിലൊക്കെ കൂടുതൽ വെള്ളം ഒഴിക്കണം അവിടെ നമ്മൾ കൈ കൊണ്ട് ഒഴിക്കാനവിടെ നമുക്ക് കൂടുതൽ വെള്ളമൊഴിക്കാൻ പറ്റും സ്പ്രിംഗ്ലറാണെങ്കിൽ എല്ലായിടത്തും ഒരേ പോലയേ പോകുകയുള്ളൂ അപ്പം കോ നമ്മൾ കൂടുതൽ വെള്ളം ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളിൽ നമുക്ക് അതിനൊരു കുറവ് വരും അതു കൊണ്ട് രണ്ടു രീതിയിൽ നമ്മൾ നനയ്ക്കാറുണ്ട് വല്ലപ്പോഴുമൊക്കെ കൈ കൊണ്ടും കൂടുതൽ സമയങ്ങളിൽ സ്പ്രിംഗ്ലർ ഉപയോഗിച്ച് നനയ്ക്കും അങ്ങനെ നമ്മുടെ മഴ വെള്ളം കിട്ടാൻ കിട്ടിയിരിക്കുന്ന ആ വെള്ളത്തിൻ്റെ ശ്രോതസ്സ് തീർന്നു കഴിയുമ്പോൾ നമ്മൾ കുളങ്ങളെ ആശ്രയിക്കും കുളങ്ങളിൽ നിന്നും മോട്ടർ വെച്ച് നമ്മൾ കരയ്ക്കൊക്കെ ഈ പഴയ കുഴിയിലേക്കു തന്നെ വെള്ളം അടിച്ചു കയറ്റി അവിടെ നിന്നും നമ്മൾ പറമ്പ് നനക്കും പക്ഷേ അതിൻറ്റൊരു കുഴപ്പം എന്നു പറയുന്നത് വേനൽക്കാലം ഒക്കെ ആകുമ്പോഴത്തേക്കും കുളങ്ങളിൽ തന്നെ വെള്ളം കുറയും എല്ലാ ആൾക്കാരും കൃഷിക്കാരും മോട്ടറൊക്കെ ഉപയോഗിക്കുന്നുണ്ട് വോൾട്ടേജിന് വളരെ കുറവ് സംഭവിക്കാറുണ്ട് ആ കാര്യങ്ങളിൽ കർഷകനെന്ന നിലയിൽ സർക്കാർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ വോൾട്ടേജ് മനഃപൂർവ്വം വേണ്ടെന്നു വെക്കുന്നതാണോ എന്നു പോലും സംശയിക്കുകയാണ് കാരണം കറണ്ട് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി മോട്ടർ ഉപയോഗിക്കാൻ മേല്ലാത്ത രീതിയിൽ വോൾട്ടേജ് താഴ്ത്തി ഒക്കെ തരുന്നതായിട്ട് നമുക്ക് മനോത്തിന് വിഷമം തോന്നാറുണ്ട് പ്രഖ്യാപിത കറണ്ട് കട്ടുകളൊക്കെ അവർ പ്രഖ്യാപിക്കാറുണ്ട് അപ്പം വെള്ളം അടിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അടിക്കാനായിട്ട് വന്നു നിന്നു കഴിയുമ്പോൾ കറണ്ടില്ലാതെ വരുമ്പോൾ അടിക്കാൻ പറ്റാതെ വരും അങ്ങനെ അതു നിർത്തി മറ്റു പണിക്ക് പോകുമ്പോഴത്തേക്കും കറണ്ട് വരും അങ്ങനെ നനയെ അതു സാരമായിട്ട് ബാധിക്കാറുണ്ട് അത് ഒരു വിഷമം ഇതിൻ്റിടയ്ക്ക് പറഞ്ഞു പോയെന്നു മാത്രമേ ഉള്ളു അപ്പം നമ്മൾ എങ്ങനെയാണ് കൃഷി സ്ഥലം നനയ്ക്കുന്നതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞതു പോലെ മോട്ടർ ഉപയോഗിച്ച് അതു പോലെ തന്നേ പ്രകൃതിദത്തമായിട്ട് കിട്ടുന്ന മഴയെ നമ്മൾ പരമാവധി ഉപയോഗിച്ച് കൊണ്ടും ആ വെള്ളം പറമ്പിൽ നിന്ന് ഒഴുകി പോകാതെ കുഞ്ഞ് കുഴികളൊക്കെ ഉണ്ടാക്കി പൊതകളൊക്കെ നിരത്തി പതിയെ ഒഴുകി ഭൂമിയിൽ തന്നെ താഴത്തക്ക രീതിയിലും ഒക്കെ ക്രമീകരിക്കും കാരണം മണ്ണിലേക്ക് വെള്ളം താഴ്ന്നെങ്കിലേ വേനൽക്കാലത്ത് കുറേ വെള്ളമെങ്കിലും കുളങ്ങളിൽ കിട്ടുകയുള്ളു അത് ഇന്നത്തെ പുതിയ തലമുറയിൽപ്പെട്ട കർഷകർക്കതറിയാവുന്നതു കൊണ്ട് കാനിയൊന്നും കീറി വെള്ളമൊഴുക്കി കളയുകയില്ല അതൊക്കെ കുഞ്ഞു കുഞ്ഞ് കുഴികളിൽ കൂടി പൊതയൊക്കെ ഇട്ട് ക്രമീകരിച്ച് മഴവെള്ളത്തെയൊക്കെ ഒഴുക്കിനെയൊക്കെ തടഞ്ഞ് ഭൂമിയിലേക്ക് പരമാവധി വെള്ളങ്ങളിറക്കി വിട്ട് മഴവെള്ളം തന്നെ പരമാവധി കൃഷിയെടുത്ത് സംരക്ഷിച്ച് നിർത്തി അതിൻ്റെ നൂറു മേനി ഫലം എടുക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാ കർഷകരും അതിനു വേണ്ടി ജൈവ വളങ്ങളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുകയും പൊതയിടുകയും ഞാൻ പിന്നെ കുഞ്ഞ് കുഞ്ഞ് കുഴികളിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നിർമ്മിച്ചു വെക്കുകയും അങ്ങനെ വെള്ളമൊഴുകി പോകാനുള്ള ചാലുകളൊക്കെ അടച്ച് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അതെല്ലാ കർഷകരും ചെയ്യുന്ന മാർഗ്ഗമാണ് പിന്നീട് ആണ് നമ്മൾ മോട്ടർ ഉപയോഗിച്ച് കുളങ്ങളിൽ നിന്നും മഴവെള്ളം ശേഖരിച്ചിരിക്കുന്ന പടുതാക്കുഴികളിൽ നിന്നുമൊക്കെ നമ്മൾ ബാക്കിയുള്ള സമയങ്ങളിൽ നമ്മൾ കൃഷി നനക്കാറുണ്ട് എന്നാൽ കഠിനമായ വേനലുകൾ ഇവയൊക്കെ ചിലപ്പം തോൽപ്പിക്കുകയും കർഷകരുടെ എല്ലാ പ്രതീക്ഷകളെയും നശിപ്പിച്ച് കളയാറുമുണ്ട് ഇത്രയും പറഞ്ഞതു കൊണ്ട് നിർത്തുന്നു ഓക്കേ